കടലിൽ മീൻ പിടിക്കുന്നതെന്ന് വച്ചാൽ മീൻ പിടിക്കുന്ന ആൾക്കാർ മുക്കുവർ കടലിൽ പോയി മീൻ വലയിടുകയും വലയിട്ട് മീനിനെ പിടിച്ച് തോണി തോണിയിലോ ബോട്ടിലൊക്കെ ആയിട്ട് അത് കൊണ്ടുവന്ന് ഓരോന്ന് ഓരോ ഓരോ മീൻ ഓരോ ഓരോ മീനിനെ ഓരോ സെക്ഷനാക്കി വച്ച് അതിനെ മാർക്കറ്റിലേക്ക് കൊണ്ടുപോയി മാർക്കറ്റിലേക്ക് കൊണ്ടഉപോയി വിൽക്കുന്നു അതുപോലെതന്നെ സമീപത്ത് എന്നു വച്ചാൽ സമീപത്തല്ല ഇവിടെ ടൗണിലൊക്കെ മീൻ മാർക്കറ്റ് പോലുള്ള മാർക്കറ്റുകളുണ്ട് അതുപോലെ മീൻ നമ്മുടെ വീട്ടിൽ വീടുകളിലൊക്കെ വിൽക്കാൻ വരുന്നത് മീൻ വണ്ടികളിലാണ് അല്ലെങ്കിൽ മീൻ ഒരു സ്കൂട്ടറിലോ സൈക്കിളിലോ ആയിട്ടാണ് മീൻ ഇവിടെ കൊണ്ടു വന്ന് വിൽക്കുന്നത്